ഹലോ അ നിങ്ങൾ എവിടെയാണെന്നുള്ളത് സെവൻ ത്രീ വൺ സിക്സ് അല്ലേ വണ്ടിൻ്റെ നമ്പർ എനിക്ക് എവിടെയാണെന്ന് കറക്റ്റ് കാണാൻ കഴിയുന്നില്ല ഞാന് ഈ അമ്പലത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കടയുണ്ടല്ലോ അമ്പലത്തിൻ്റെ അടുത്തൊരു കട അതിൻ്റെ അടുത്താ നിക്കുന്നത് നിങ്ങള് മറ്റേ ഫ്ലൈ ഓവർ വഴി വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവിടെ എത്താൻ കഴിയും ആ അതെ അതെ ഒരു പിങ്ക് ഡ്രസ്സ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് പക്ഷേ നിങ്ങൾ എവിടെയാന്നെനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ ആ ഞാൻ കൊറച്ചു നേരം ആയി ഇവിടെ തന്നെ നിക്കുന്നുണ്ട് പക്ഷേ വണ്ടി കാണുന്നില്ല നിങ്ങളുടെ കാ ഒരു റെഡ് കളർ വാഹനമാണോ റെഡ് കളർ അ അവിടുന്ന് കുറച്ച് മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള കടേൻ്റെ മുന്നിൽ തന്നെയാണ് ഞാൻ നിക്കുന്നത് അതെ അതെ ആ അതിലൂടെ റൈറ്റ് എടുത്തിട്ട് വന്നാൽ മതി കാണുന്നുണ്ടോ നിങ്ങൾക്ക് ആ ആ അതെ അതെ കുറച്ചുകൂടെ മുമ്പോട്ടു വന്നിട്ടുണ്ടെങ്കിൽ ആ ആ ഓക്കേ ഓക്കേ